ഭാഷകളെപ്പറ്റി സംസാരിക്കുകയാണെങ്കിൽ പലതരം ഭാഷകളുണ്ട് ഇപ്പം ഇന്ത്യയിൽ തന്നെ എടുക്കണ്ട പുറം കൺട്രികൾ എടുക്കുകയാണെങ്കിൽ തന്നെ പലതരം ഭാഷകളാണ് ഇരിക്കുന്നത് ഇപ്പം ഇന്ത്യയിലത്തെ കുറച്ച് ഭാഷകളെ കുറിച്ച് പറയാനാണെങ്കിൽ എന്താ കുറച്ച് പറയുകയാണെങ്കിൽ തമിഴ് ഹിന്ദി കന്നഡ തെലുഗു അതേപോലെ തന്നെ മലയാളം അങ്ങനെ കുറേയുണ്ട് പിന്നെ ഈയിടെയായിട്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെയും ഭയങ്കര കുറേ അധികം ആവശ്യം വന്നിട്ടുള്ളൊരു ഭാഷയെന്ന് പറയുന്നത് ഇംഗ്ലീഷാണ് അതായത് ഇപ്പോൾ ജോ ഇപ്പം എല്ലാവരും പറയും എന്തിനാണിപ്പം ഭയങ്കര പ്രാധാന്യമെന്നുള്ള രീതിയിൽ സംസാരിക്കുന്നത് ഇംഗ്ലീഷ് ഭാഷേനെയാണ് കാരണം എന്താ പറയുക വിദ്യാഭ്യാസത്തിൻ്റെ കേസിലായാലും ഇപ്പം ജോലിയുടെ കേസിലായാലും എല്ലാ കാര്യത്തിനും ഭയങ്കര പ്രാധാന്യമായിട്ട് മുന്നിട്ട് നിൽക്കുന്നത് ഇംഗ്ലീഷ് ഭാഷയാണ് പിന്നെ ഹിന്ദിയെന്ന ഭാഷേനെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ രാഷ്ട്ര ഭാഷയാണ് അത് ശരിക്കും അറിഞ്ഞിരിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം പക്ഷെ എനിക്ക് ശരിക്കും അറിയത്തില്ല പിന്നെ എനിക്കറിയുന്ന കുറച്ച് ഭാഷകളെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ആകെ രണ്ട് ഭാഷയാണ് എനിക്ക് കൃത്യമായിട്ട് അറിയുന്നത് ഒന്ന് ഇംഗ്ലീഷ് ഒന്ന് മലയാളം പിന്നെ തമിഴ് എന്നുള്ള ഭാഷേനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കത് അത് മലയാളമായിട്ട് ഒരു ഏകദേശം സാമ്യമുള്ളൊരു ഭാഷയാണ് അപ്പോൾ അത് ഏകദേശം കേൾക്കുമ്പോൾ അത് എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും പക്ഷെ അത് എഴുതാനോ അത് വായിക്കാനോ ഒന്നും എനിക്ക് അറിയത്തില്ല എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ അത് കേട്ട് അത് മനസ്സിലാക്കാനുള്ള ഒരു ഇതുണ്ട് പക്ഷെ ഹിന്ദി ഭാഷയെടുക്കുകയാണെങ്കിൽ നമ്മൾ ഒന്ന് തൊട്ട് എട്ട് വരേക്ക് ചിലപ്പോൾ അതിലും കൂടുതൽ പഠിക്കുന്ന ആൾക്കാരുണ്ടാകും ഒന്ന് തൊട്ട് എട്ട് വരെ എല്ലാവരും പഠിക്കുന്ന ഒരു ഭാഷയാണ് ഹിന്ദി ഭാഷ അത് കൊണ്ടുതന്നെ അതെഴുതാനും അതേപോലെത്തന്നെ വായിക്കാനും ഒക്കെയും നമുക്കറിയും പക്ഷെ എന്നിരുന്നാലും നമുക്കത് ഒരാൾ വർത്താനം പറയുമ്പോൾ അത് കേട്ടത് എന്താണ് പറയണതെന്നുള്ള മനസ്സിലാക്കാനായിട്ടുള്ള എനിക്ക് പറ്റില്ല പക്ഷെ ഒന്നോ രണ്ടോ ലൈനുകൾ പറഞ്ഞ് കേട്ടാൽ മനസ്സിലായിക്കഴിഞ്ഞാലായി അല്ലാതെ എനിക്ക് ഹിന്ദി ഭാഷ മനസ്സിലാവത്തില്ല പിന്നെ ഇപ്പോൾ മലയാളഭാഷേനെ ബാക്കി ഭാഷകളായിട്ട് താരതമ്യം ചെയ്യാനാണ് പറയന്നതെന്നുണ്ടെങ്കിൽ എന്താ പറയുക ഇപ്പം ബാക്കി ഭാഷകളൊക്കെ ഇങ്ങനെ മുന്നിട്ട് നിന്നിട്ടുണ്ട് നമ്മുടെ മലയാളഭാഷേനെ ശരിക്കും അടിച്ച് താഴ്ത്തി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ എന്താ ഈ മലയാളഭാഷയ്ക്ക് നല്ല പ്രാധാന്യം നൽകണമെന്നാണ് എൻ്റൊരഭിപ്രായത്തിൽ കാരണം അത് നമ്മുടെ മാതൃഭാഷയാണ് പിന്നെ മലയാള ഭാഷേനെക്കുറിച്ച് സംസാരിക്കാനാണെങ്കിൽ കുറച്ച് പഠിച്ചെടുക്കാനായിട്ട് വളരെ അധികം ബുദ്ധിമുട്ടുള്ള ഒരു ഭാഷയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം അത് അത്രയും സില്ലി ആയിട്ടുള്ളതല്ല നല്ല കടുകട്ടി ഭാഷയാണ് പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ബാക്കിയുള്ള ആൾക്കാർ ബാക്കിയുള്ള ആൾക്കാരുടെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ മലയാളഭാഷ അറിയാത്ത വേറെ ആൾക്കാരുടെ അടുത്ത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ അവർ പറയും എന്താ മറ്റ് ഭാഷകളൊക്കെ പഠിച്ചെടുക്കാനായിട്ട് കുറച്ചും കൂടി എളുപ്പമാണ് പക്ഷെ മലയാള ഭാഷ പഠിച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് നമ്മളൊക്കെ ഇവിടെ ജനിച്ച് വളർന്ന കാരണം നമുക്ക് മലയാള ഭാഷ കുറച്ചും കൂടി എളുപ്പമായിട്ട് കിട്ടും അപ്പം എൻ്റൊരു അഭിപ്രായത്തിൽ മലയാള ഭാഷയ്ക്ക് നല്ല പ്രാധാന്യം നൽകണമെന്നും വിദ്യാഭ്യാസത്തിൻ്റെ കേസിലായാലും എല്ലാ കാര്യത്തിലും പ്രാധാന്യം നല്കണമെന്നാണ് എൻ്റൊരഭിപ്രായം